ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുവത്തൊന്ന് നാലേ ആറേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എട്ട് രണ്ട് ആയിരത്തിതൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അഞ്ച് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന്